ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു മനുഷ്യനും തൻ്റെ മുന്നിൽ കാണുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്ക് വെക്കാറുണ്ട് നൃത്തം ഇഷ്ടപ്പെടാത്തവരോ അതേപോലെ തന്നെ പാട്ടുകളിഷ്ടപ്പെടാത്തവരോ ആയിട്ട് ആരും തന്നെ ഇല്ല അത് അതുകൊണ്ട് തന്നെ നൃത്ത നൃത്ത വീഡിയോകൾ സോഷ്യൽ മീഡിയകൾ കയ്യോടെ തന്നെ ഏറ്റെടുക്കാറുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ പങ്ക് വെച്ചാലും അത് നല്ല നല്ല നല്ല രീതിയിലുള്ളവയാണെങ്കിൽ നല്ല രീതിയിലും മോശം രീതിയിലുള്ളവയാണെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും എല്ലാവരും ശ്രമിക്കാറുണ്ട്